മലയാളത്തിൽ എഴുതുമ്പോഴും സംസാരിക്കുമ്പോഴും ബുദ്ധിമുട്ടുകളൊന്നും വരാറില്ല കാരണം നമ്മുടെ ദേശീയ ഭാഷ ആയതുകൊണ്ടും നമ്മൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ടും പ് സംസാരിക്കുമ്പോൾ ബുദ്ധിമുട്ടാറില്ല എന്നുള്ളത് സത്യം ആണ് പിന്നെ എഴുത്ത് എഴുതുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇപ്പം നമുക്ക് പ്രത്യേകിച്ചായിട്ട് ആ എഴുത്തിൻ്റെ മേഖലകളൊന്നും ഇല്ല കാരണം ഇപ്പം അത്യാവശ്യ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും എഴുതും എന്നല്ലാതെ സ്ഥിരമായിട്ടുള്ളൊരു എഴുത്ത് നമുക്ക് ഇല്ല എന്നുള്ളതാണ് എന്നാൽ ചില അക്ഷരങ്ങളെ സംബന്ധിച്ച് എഴുതുമ്പോൾ ചില ഒരു സംശയം എന്നൊഴിച്ചാൽ വളരെ ഭംഗിയായിട്ട് എഴുതാൻ സാധിക്കും എന്നുള്ള ഒരു ഉറപ്പ് എനിക്കുണ്ട് എഴുത് എഴുതുന്നും ഉണ്ട് ഈ നാ ഈ നാട് വിട്ട് മറ്റൊരു നാട്ടിൽ ജോലിയിലൊക്കെ ആയിരിക്കുമ്പോൾ ഫോണും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് അന്ന് നമ്മൾ എഴുത്ത് എഴുതി അയയ്ക്കുന്ന ഒരു സാഹചര്യം ആ സാഹചര്യമൊക്കെ ഒരുപാട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എഴുത്ത് അറിയാവുന്നതിനെ സംബന്ധിച്ച് പലപ്പോഴും എഴുതാനായിട്ട് അന്ന് താൽപ്പര്യമാണ് കാരണം ആകെപ്പാടെ വീടുമായിട്ട് ബന്ധപ്പെടുവാനായിട്ടുള്ള ഒരേയൊരു മാർഗ്ഗം എന്ന് പറയുന്നത് എഴുത്തായിരുന്നു അന്നൊക്കെ എഴുതുമായിരുന്നു നന്നായിട്ട് എഴുതി കാര്യങ്ങൾ സ്വന്തമായിട്ടൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ആ സാഹചര്യത്തിൽ പോലും ആ ആ ഒരു സിറ്റുവേഷനിൽ ജീവിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഒത്തിരി ആൾക്കാർ എൻ്റെ കൂട്ടുകാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഈ എഴുതാൻ സാധിക്കാതെ മറ്റുള്ളവരെക്കൊണ്ട് എഴുതുന്നതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അപ്പം ആ എഴുത്തിനെ സംബന്ധിച്ച് ഞാൻ അതിൻ്റെ വില അന്ന് മനസ്സിലാക്കി കാരണം നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ സ്വകാര്യമായിട്ട് എന്തെങ്കിലും തുറന്ന് പറഞ്ഞ് എഴുതണം എന്നുണ്ടെങ്കിൽ രഹസ്യ സ്വഭാവങ്ങളടങ്ങുന്ന ഏത് കാര്യമായാലും അത് നമുക്ക് തന്നെ എഴുതുവാനായിട്ട് അറിയാവുന്നതുകൊണ്ട് ഒരു കാര്യമായിട്ട് ഞാൻ അതിനെ വലുതായിട്ട് കണക്കാക്കുവാണ് നേരെ മറിച്ച് എഴുതാൻ അറിയാത്തൊരു വ്യക്തി മറ്റുള്ളവരെ ആശ്രയിക്കുമ്പോൾ സ്വകാര്യമായിട്ട് പറയാനുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് വ്യക്തികളിൽ അപ്പോൾ എഴുത്ത് എഴുത്ത് എന്നുള്ളത് അത് വളരെ അത്യന്താപേക്ഷിതമാണ് എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട് എഴുതുന്നതിനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല സംസാരിക്കുന്നതിനെ കുറിച്ചും അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടില്ല